എൻ്റെ ഫസ്റ്റ് പ്രൊഡക്ട് ഗ്യാസാണ് അതായത് നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കില്ലേ ആ ഗ്യാസ് അപ്പോഴെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെക്കൊണ്ട് നമുക്ക് നല്ലൊരു ഉപകാരമാണ് കാരണം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഡെയ്ലി ലൈഫെന്നു പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ അതായത് പെണ്ണുങ്ങൾ കൂടുതലും ചിലവഴിക്കുന്നത് അടുക്കളയിൽ തന്നെയാണ് അപ്പം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ജോലിയ്ക്കൊക്കെ പോകുന്നവർക്കൊക്കെയാണെങ്കിൽ പെട്ടന്ന് പാചകങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഏറ്റവും സുഖകരമായിട്ട് ചെയ്യാനുള്ളൊരു പിന്നെ ഇതു തന്നെയാണ് ഗ്യാസ് പണ്ടത്തെ കാലത്തൊക്കെയെന്നു വച്ചിട്ടുണ്ടെങ്കിൽ വിറകിലൊക്കെ ആകുമ്പം അതായത് വിറകിൽ വിറകൊക്കെ കത്തിച്ച് ആണ് ചോറും കറിയെല്ലാം വയ്ക്കുക അപ്പം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ ഇന്നെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് വേണ്ട പെട്ടന്ന് പെട്ടന്ന് ആകും പിന്നെയെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പാത്രങ്ങളിലൊന്നും കരി പിടിക്കില്ല നമുക്ക് പെട്ടന്ന് ക്ലീൻ ആക്കാൻ പറ്റും പണ്ടൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ അതായത് അടുപ്പിലൊക്കെ വയ്ക്കുമ്പോൾ നമുക്ക് അങ്ങനെ ക്ലീൻ ആക്കാനൊന്നും അതായത് പെട്ടന്ന് ഇതായിപ്പോവും അത് കരിയൊക്കെ പിടിക്കും പിന്നെ എന്ന് വച്ചിട്ടുണ്ടെങ്കിൽ കുക്കറ് കുക്കറൊക്കെ നമുക്ക് അടുപ്പിലും വയ്ക്കാം എന്നാലും കൂടുതലും പെട്ടന്ന് ആകുക നമുക്ക് ഗ്യാസ് തന്നെയാണ് നമ്മൾ ഇപ്പോൾ ചായയൊക്കെ ഒരു ഗ്ലാസ് പെട്ടന്ന് ആർക്കെങ്കിലും കുടിക്കണം എന്നോ ചൂട് വെള്ളം ചൂടാക്കി കുടിക്കണം എന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മളപ്പം അടുപ്പ് കത്തിക്കാൻ നിൽക്കാണ്ട് ഈ ഗ്യാസ് കാര്യങ്ങളൊക്കെയുണ്ടെങ്കിൽ നമുക്കത് വലിയ വലിയൊരു ഉപകാരമാണ്